ആ ഹലോ എടാ ഞാൻ നിൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് നാളെയൊരു ഇൻ്റർവ്യു ഉണ്ടെന്ന് അപ്പം ഞാൻ അതിനായിട്ട് വന്നതാണ് അപ്പം ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങാം എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഇവിടെ എനിക്ക് ഇവിടെ നല്ല എരിവുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ഏറ്റവും നല്ല ഏതാ റെസ്റ്റോറന്റ് ഉള്ളത് നല്ല എരിവുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡ്ഡ് കിട്ടുന്ന റസ്റ്റൊറന്റ് ഏതാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഫുഡ്ഡ് ഏതാണ് സ്പൈസി ഫുഡ്ഡ് ഏതാണ് നീ അതൊന്ന് പറയാമോ അതുമല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പൈസി ആയിട്ട് കഴിക്കുന്ന ഏതെങ്കിലും ഫുഡ്ഡ് ഉണ്ടോ നിനക്ക് മെൻഷൻ ചെയ്യാൻ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മെനു നിനക്ക് പറയാനായിട്ട് ഉണ്ടോ എന്താണെങ്കിലും നല്ല റെസ്റ്റൊറന്റ് ഇവിടുത്തെ ഏതാണ് അതൊന്ന് പറയണേ സ്പൈസീ ഫുഡ്ഡിന് പറ്റിയ നല്ലൊരു റെസ്റ്റൊറൻറ്റും അത് പോലെ തന്നെ ആ റെസ്റ്റൊറൻറ്റിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സ്പൈസീ ഫുഡ്ഡ് ഉണ്ട് എങ്കിൽ അതുംകൂടെ നീ ഒന്ന് പറ കേട്ടോ